ഹലോ എ കെ ജി ഗ്യാസ് ഏജൻസിയല്ലേ ഞാൻ പവിത്ര അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രിയ ആണ് വിളിക്കുന്നത് അതെ ആ നേരത്തെ നമ്മള് അവിടെ നിന്നാണ് ഡെലിവറി ചെയ്തിരുന്നത് ആ ഇപ്പം ഞങ്ങള് ആ അപ്പാർട്മെൻറ്റ് അതേ കെട്ടിടത്തിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റ് ഞങ്ങള് മാറിയിരിക്കുവാണ് ഞങ്ങള് നേരത്തെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നല്ലോ ആ ഇപ്പം ഞങ്ങള് സെക്കണ്ട് ഫ്ലോറിലോട്ട് ഫ്ലാറ്റ് നമ്പര് വൺ തേർട്ടി വണ്ണിലോട്ട് മാറിയുട്ടുണ്ട് ആ അപ്പം ഡെലിവറി അങ്ങോട്ട് ഒന്ന് ആക്കണമായിരുന്നു ഓക്കേ ആ ആ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്തേക്കാം അപ്പം ആ ഡെലിവറി അപ്പം ഞങ്ങളുടെ അഡ്രസ്സ് മാറി അപ്പം അതൊന്ന് ഇൻഫോം ചെയ്യാനായിട്ടായിരുന്നു വിളിച്ചിരുന്നത് ഓക്കേ ആ ഞങ്ങള് പുതിയ അഡ്രസ് ഞാൻ വാട്സ്പ്പ് ചെയ്തേക്കാം അപ്പം അതനുസരിച്ച് അടുത്താഴ്ച്ച തൊട്ട് ഡെലിവറി നടത്തണേ ഓ ശരി ഓക്കേ താങ്ക് യു